ഉണ്ട് ഉണ്ട് എനിക്ക് ഇങ്ങനെ നന്നായിട്ട് ഒരു തയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോരുത്തർ പുതിയ പുതിയ മോഡലുകളൊക്കെ കണ്ടു അത് നോക്കി അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ചു ചെയ്തൊക്കെ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തിട്ട് ഞാൻ അത് എനിക്ക് പുതിയ പുതിയ മോഡലുകളിലൊക്കെ തയ്ക്കാനൊക്കെ ഭങ്കരമായിട്ട് എനക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു കട തുടങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം ആഗ്രഹമുണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് പുതിയ മോഡലുകളും അതുപോലെ പഴയ കാര്യം പഴയ കാലത്തെ ഡ്രസ്സുകൾ അതൊക്കെ ഇങ്ങനെ പുതിയ ഒരു രൂപമാറ്റമൊക്കെ വരുത്തി ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അതിലെ ചിത്രത്തുന്നലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു വരുന്നതും പുതിയ മോഡലുകളിലും നമ്മൾ പുതിയതായിട്ട് ഓരോ ഫാഷനൊക്കെ കാണുമ്പം അതൊക്കെ എന്ത് എങ്ങനെയാണെ ന്ന് ശ്രദ്ധിച്ചു അപ്പം അതുപോലെ തന്നെ അതൊക്കെ ഒന്നു പരീക്ഷിച്ചു നോക്കിയിട്ട് അങ്ങനെ അത് തന്നെ ഒരു പുതിയ രീതിയിൽ എൻ്റേതായ ഐഡിയയൊക്കെ കൊടുത്ത് എൻ്റെ ആശയമൊക്കെ കൊടുത്ത് ഒരു കാര്യം അങ്ങനെ പുതിയ ഒരു മോഡലാക്കി മാറ്റാനായിട്ട് ഞാൻ ഇങ്ങന ശ്രമിക്കാറുണ്ട് ഇങ്ങനെ അപ്പം ഒരു കടയൊക്കെ ഇട്ട് അത് ഇങ്ങനെ കൂടുതൽ വിപുലമായിട്ട് ചെയ്യാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു ഫാഷനാണ് തയ്ക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് തയ്ക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭയങ്കര താല്പര്യമുള്ളത് ഉണ്ട് ഞാൻ എവിടെ പോയാലും നമ്മൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പുതിയതായിട്ടുള്ള ഓരോ ഡ്രസ്സുകളൊക്കെ കാണുമ്പോഴും അതിനെ പറ്റിയൊക്കെ അത് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അപ്പം അത് എന്നെ ചെയ്യും അതിൽ എന്തെങ്കിലും മാറ്റമൊക്ക വരുത്താൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കളർ കോമ്പിനേഷനൊക്കെ ചില കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ആകർഷണം തോന്നുന്ന രീതിയിലുള്ള കളറുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കളറുകളൊക്കെ കണ്ടു കഴുമ്പോൾ അവ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങന ഓരോ രൂപം ഡ്രസ്സാക്കി രൂപകൽപ്പനയൊക്കെ ചെയ്യാൻ രൂപം കൊടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തു ഞാൻ ഒരു കട ഇട്ട് സ്വന്തായിട്ട് ഒരു ബിസിനസ്സ് ആയിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ വളരെ അധികം ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല തയ്യൽ എന്ന് പറയുന്നത് നന്നായി ഇങ്ങനെ ഭയങ്കര ഒരുപാട് സാധ്യതകളും അതിന് അകത്ത് നിന്ന് കണ്ടെത്താനായിട്ടും ഒരു പഴയ ഒരു മോഡൽ എങ്ങനെ പുതിയ ഒരു അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ ഇതായിട്ട് മാറ്റാൻ പറ്റും പുതിയ ഒരു മോഡലായിട്ട് പുതിയ ട്രെൻഡിലുള്ള രീതിയിൽ അത് ആക്കാനായിട്ടൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ അതുപോലെ താല്പര്യത്തോടെ അവർ അത് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ വിപുലുമായിട്ട് കുറേ ആൾക്കാർക്ക് തൊഴിലും കൂടെ കൊടുക്കുന്ന രീതിയിൽ അത് വിപുലമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊക്കെ ഞാൻ ഒരുപാട് ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇപ്പം അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യം അതിൽ അതിനെ പറ്റി അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ടെത്തി ഞാൻ പുതിയ രീതിയിലും ഒക്കെ എൻ്റെ ഐഡിയായും എൻ്റെ ആശയമൊക്കെ ചേർത്തു പഴയതിനെ പുതിയതാക്കി മാറ്റുകയും പഴയതിൽ പുതുമ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്